എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാങ്ക് സംബന്ധിച്ചുള്ള ഈ മോശം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇപ്പം പൈസ വിഡ്രോ ചെയ്യാനായിരിക്കാം അല്ലങ്കിൽ ഒരു എ ടി എം കാർഡ് എടുക്കാനായിരിക്കും അക്കൗണ്ട് എടുക്കാനായിരിക്കും ആ അപ്പോൾ അക്കൗണ്ടിലെ പൈസ മാറ്റാനായിരിക്കും ട്രാൻസ്ഫർ ചെയ്താൽ പല ആവശ്യങ്ങളും കാണും പക്ഷേ എന്താവശ്യത്തിന് നമ്മളവിടെ ചെന്നാലും നമ്മുക്കതിനെപ്പറ്റി ഒന്നും തന്നെ അറിയത്തൊണ്ടാവില്ല കാരണം നമ്മൾ ബാങ്ക് സംബന്ധമായിട്ടുള്ള നമ്മളൊന്നും ഹാൻഡിൽ ചെയ്യാത്ത ഒരു ആളാണെങ്കിൽ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയില്ല അപ്പം നമ്മളവിടെ ഓരോ സെക്ഷനും ഓരോ ആളുകളല്ലേ അപ്പം നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനാ നമ്മൾ ചെല്ലുന്നതെങ്കിൽ ആ വിഡ്രോ ചെയ്യാനിരിക്കുന്ന ആളായിരിക്കത്തില്ല നമ്മൾ ചെന്ന് ചോദിക്കുന്ന ആള് അപ്പം നല്ല രീതിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മളോട് പറഞ്ഞ് തരും ഇത് ഇന്ന സെക്ഷനാണ് താങ്കൾ അവിടെ പോയി പറഞ്ഞാൽ അത് നിൽക്കാനുള്ള ഇത് കിട്ടും എന്തായാലും ചില ആളുകളെന്ന് വച്ചാൽ നമ്മൾ ചോദിക്കേണ്ട സ്ഥാനത്തുള്ള ആള് മൈൻഡ് ചെയ്യില്ല നമ്മളങ്ങോട്ട് എക്സ്ക്യൂസ് മി ചോദിച്ച് ഒരു കാര്യം ചോദിച്ചാൽ മൈൻഡ് ചെയ്യില്ല കാരണം ചില ആളുകൾ നമ്മളോട് പെരുമാറുന്ന രീതി വളരെ മോശമായിരിക്കും കാരണം അവർ നമ്മളോട് പറഞ്ഞ് തരുന്ന കര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകണമെന്നില്ല കാരണം ആർക്കാണ്ടോ വേണ്ടി എന്തോ പറഞ്ഞ് തരുന്നു പക്ഷെ ചില ആളുകളെന്ന് വച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിന് ചെന്നാലും നമുക്ക് നല്ല ഹൺഡ്രഡ് പേർസൻറ്റേജ് ജോബിനോട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മളെന്ത് ആവശ്യമെന്നാൽ നമ്മുടെ അതിപ്പം എന്ത് തന്നെ ആണേലും നമുക്ക് പറഞ്ഞ് തരാനും മനസ്സിലാക്കണം അപ്പം മോശനുഭവമെന്ന് വച്ചാൽ ഇതൊക്കെ തന്നെയാ കാരണം തിരിച്ച് ഇങ്ങോട്ടുള്ള റെസ്പോണ്ട് വളരെ മോശമായിരിക്കും കാരണം നമുക്ക് സഹായം ലഭിക്കില്ല നമ്മളൊരു സഹായത്തിന് ചെല്ലുമ്പോൾ നമുക്കത് ലഭിക്കണമെങ്കിൽ ആ അങ്ങോട്ടുള്ള രീതികൾ പെരുമാറ്റം അത് നന്നായിരിക്കണം ആ ഒരെണ്ണം പിന്നെ പറയുവാണെങ്കിൽ ചില ആളുകൾ മാത്രം നമ്മൾ മോശമായിട്ട് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളു ചില ആളുകൾ നല്ല രീതി തന്നെ നമുക്ക് നല്ല ഡെഡിക്കേഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു അനുഭവം പറയുവാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും അതിൻ്റെ പ്രശ്നങ്ങളാണല്ലോ ഒന്നുകിൽ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്യൂവ് പിന്നെ എഴുതുന്ന കാര്യങ്ങൾ അവൈലബിലിറ്റീസൊക്കെ പേപ്പറിൻ്റെ അവൈലബിലിറ്റീസൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്